ഇപ്പോൾ സ്ത്രീകള് നേരിടുന്ന വെല്ലു വിളി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാലവര് കൂടുതലായിട്ടും നേരിടുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇപ്പോൾ ഓരോ മനുഷ്യന്മാരുടെ ഇടയിലും അവര് ജീവിച്ച് പോകണമെങ്കില് കുറെ നല്ല രീതിയിലുള്ള പാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവരിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും അവർക്ക് വലിയ സേഫ്റ്റിയും കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ സ്ത്രീകൾക്ക് കൂടുതലായിട്ടും സുരക്ഷിതത്വം ആണ് വേണ്ടത് അവർക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അവര് രാവിലെ ഇപ്പം സ്കൂൾലേക്കാണെങ്കിലും ചെറിയ കുട്ടികളെ പോലും വിടാത്ത ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തില് ഉള്ളത് ഇപ്പം ഈ അടുത്ത് തന്നെ ഒരു കുട്ടിയെ ഒരു എന്താ പറയുക ബംഗാളിക്കുട്ടിയാണ് ഉള്ളതെങ്കിലും ആ കുട്ടി ഇവിടെ തന്നെയാണ് പഠിച്ച് വളർന്നതും എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയാണ് അപ്പം ആ കുട്ടീനെ വേറൊരു ബ ബംഗാളി അതിനെ പീഡിപ്പിച്ച് കൊല്ലുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചെറിയൊരു കുട്ടിയെ പോലും വെറുതെ വിടാത്ത സമൂഹമാണ് നമ്മുടെ ഇവിടെ ഉള്ളത് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയും പെൺകുട്ടികളെ ജോലിക്ക് വിടാൻ പാടില്ല അവരുടെ ജോലി കൊണ്ട് ആണുങ്ങള് ജീവിക്കണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം നേരെ എന്താ പറയുക ഇപ്പം പെൺ പെൺകുട്ടികളും ജോലിക്കൊക്കെ പോയി സമ്പാദിക്കുക അങ്ങനത്തെ കാര്യങ്ങളക്കെ ചെയ്യുന്നുണ്ട്